കപ്പ ചേന ചേമ്പ് വാഴക്കൊല ഇവയൊക്കെ ഞങ്ങൾ വിൽക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർ കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് അവർ കടകളിൽ നല്ല കടകളിലും മറ്റുള്ളവർക്കും വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ചെറിയ പൈസ മാത്രം തരും നല്ല എത്ര നല്ലതാണെങ്കിലും നല്ല കുലകൾ ആണെങ്കിലും പറയും ചെറിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് അവർ അതിനെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നല്ല ഗുണമുണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ല പിന്നെ ഇത് കൂടുതലും കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി വിൽക്കാൻ ആളില്ലാത്തതുകൊണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണ് നമ്മൾ ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്നത് വീടുകളിൽ വന്ന് എടുക്കുന്നവരാണ് കൂടുതലും പിന്നെ ചേമ്പ് അതുപോലുള്ള സാധനങ്ങൾ ഞങ്ങൾ കടകളിൽ കൊണ്ട് കൊടുക്കും ചാക്കുനിറയെ എന്നാലും അവർ നമുക്ക് ഒരു അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു നാലിൽ ഒരു വില പോലും ഞങ്ങൾക്ക് തരാറില്ല ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്ക് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ അവർ അത് അറുപതിനും എഴുപതിനും ഒക്കെയാണ് വിൽക്കുന്നത്